ഇന്നത്തെ കുട്ടികൾ കൂടുതലും കളിക്കുന്നത് ഫുട്ബോള് അങ്ങനത്തെ ഒന്നും അല്ല ഓൺലൈൻ ഗെയിം ആണ് ഫുള്ളും കളിക്കുന്നത് ഫ്രീഫയർ ആണ് കൂടുതലും കളിക്കാറ് ഫ്രീഫയര് പബ്ജി മിനിമിൽട്ട അങ്ങനെ അങ്ങനെ കുറേ ഗെയിംസാണ് കളിക്കുന്നത് പെസ്സ് ലുഡോ അങ്ങനെ കുറേ ഗെയിംസാണ് കളിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ അല്ല ഹോളിബോളൊക്കെ ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെയാണ് വരുന്നത് അതേപോലെ ക്രിക്കറ്റ് വരെ ഓൺലൈൻ ആണ് ഇപ്പോൾ അതാണ് ഫുള്ളും മൊബൈലു വഴിയാണ് എല്ലാവരും ഗെയിം ഒക്കെ കളിക്കുന്നത് ആരും ഗ്രൗണ്ടിലിറങ്ങി കളിക്കുന്ന കുട്ടികൾ ഇപ്പോഴും കുറവാണ് മൊബൈൽ ഇല്ലാത്ത കുട്ടികളൊക്കെയാണ് ഇപ്പോഴും ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് അല്ലാത്ത കുട്ടികളൊന്നും ഇപ്പോൾ ഗ്രൗണ്ടിലില്ല ശരി മൊബൈൽ ഉള്ള കുട്ടികൾ ഫുള്ളും മൊബൈലിൽ തന്നെയാണ് ഗെയിം കളിക്കുന്നത് ഗെയിമിൽ അഡിക്ട് ആവുകയാണ് അവർ ചെയ്യുന്നത് ഇപ്പോഴത്തെ കളി കൂടുതലും ഫ്രീഫയറ് പബ്ജി പെസ്സ് ജി ടി എ ഫൈവ് എന്നൊക്കെ പറഞ്ഞ ഗെയിമുകളാണ് കൂടുതലും ജി ടി എ ഫൈവൊക്കെ പൈസ കൊടുത്തിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാൻ അങ്ങനത്തെയൊക്കെ ഗെയിമാണ് കൂടുതലും ഇപ്പോൾ കുട്ടികൾ കളിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഗ്രൗണ്ടിൽ കൂടുതൽ കുട്ടികളിപ്പോൾ ഇറങ്ങുന്നില്ല എല്ലാം ഓൺലൈൻ വഴിയാണ് ഗെയിം കളിക്കുന്നത്